ഹലോ ആ പ്രിൻസിപ്പിൾ മാഡം ആണോ ആ ഞാൻ ഒന്ന് മാഡത്തിൻ്റെ സ്കൂൾലെ ട്വൽവ് സി സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന എബിൻ്റെ പാരൻറ്റാണ് എബി എബി അതേ ആ അത് ഞാൻ ഒരു ഒരു റിക്വസ്റ്റ് കൂടെ അത് പറയാൻ വേണ്ടീട്ട് ഞാൻ വിളിക്കാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത ആഴ്ച സ്കൂൾ നമ്മൾ ഫാമിലിയായിട്ടൊരു ടൂർ അറേഞ്ച ചെയ്തു അപ്പം ഇവൻ ഇങ്ങനെ വരാൻ വേണ്ടീട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നു അപ്പോൾ ഇവൻ ആദ്യം ഒക്കെ നല്ല പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ വളരെ ഉഴപ്പാണ് പ്ലസ് ടു കൂടി അല്ലേ അവൻ അതിന് എൻ്റെ ഒരു ചേച്ചീടെ വീട്ടിലാക്കീട്ട് പോവാം അമ്മേന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വാശി പിടിച്ച് വരാൻ വേണ്ടി നിൽക്കാണ് കാരണം പ്രാക്ടിക്കൽസെല്ലാം മിസ്സാവല്ലോ അപ്പോൾ എനിക്ക് ആ എന്ത് ചെയ്യണമെന്നറീല്ല അപ്പോൾ അതുകൊണ്ട് മാഡത്തിനോട് ഒരു റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടീട്ടായിരുന്നു ഇവനെ കൊണ്ട് പോണോ കൊണ്ട് പോവുന്നത് എങ്ങനെ ആണ് എന്നൊന്ന് പറഞ്ഞ് തന്നെങ്കിൽ വലിയ ഉപകാരം ആയിരുന്നു ഞാൻ ഞങ്ങൾ മാക്സിമം ഒരു ഒരു ടു ഡേയ്സോ ഒരു മാക്സിമം ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് ഒക്കെ അത്രേ ഉള്ളൂ വൺ വീക്ക് എന്തായാലും വൺ വീക്ക് എന്തായാലും

അത് മതി ഇന്നാ വന്നോ

ആ അതാ ഇതാ അതെ അത്

വരും ആ അതെ അതെ അവർ

ആ ആ ആ ആ ശരി ആ ഓക്കെ ഓക്കെ എന്നാൽ ആ ആ ആ ഓ ഓ ഓ ഓ ഓ ആ ഇരിക്കുന്നുണ്ട് ഇതാ അതാ അതാന്ന് അതാ അവന് ഒന്ന് ലീവ് തന്നെങ്കിൽ അവൻ്റെ ക്ലാസ് ടീച്ചറും ആയിട്ടൊക്കെ ഒന്ന് കോൺടാക്ററ് ചെയ്ത് അങ്ങനെ ഒരു ഇത് ചെയ്ത് തന്നെങ്കിൽ വലിയ ഉപകാരം ആയിരുന്നു ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ ഓ